കോൺഡിനൻ്റൽ ആഹാരങ്ങളിൽ അറബിക്ക് ഭക്ഷ്ണങ്ങൾ പാചകം ചെയ്യാൻ താൽപര്യമാണ് കാരണം കൂടുതൽ മസാലകളും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ സിമ്പിളായിട്ട് കുക്ക് ചെയ്യാൻ ചെയ്യാൻ പറ്റുന്ന ഭക്ഷണമാണ് അറബിക്ക് മന്തി മന്തി പോലെയുള്ളത് റൈസുകൾ കുറച്ച് സോസ് അതെ മാതിരി വലിയ മസാലകളൊന്നുമില്ലാത്ത ഭക്ഷണം ആയത്കൊണ്ട് തന്നെ പാചകം ചെയ്യാൻ താൽപര്യം കൂടുതലാണ് പിന്നെ അത് പോലെ പാസ്ത പോലത്തെ നൂഡിൽസുകൾ അത്തരം ഭക്ഷണങ്ങളും താൽപര്യമാണ് കൂടുതൽ സ്വാദുള്ള എരിവ് അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും കൂടുതൽ ഉണ്ടാവില്ല കഴിക്കാനും താൽപര്യമാണ് പാചകം ചെയ്യാനും താൽപര്യമാണ് പൊതുവെ അറബി ഭക്ഷണം ങ്ങള് കുക്കിങ്ങിൽ കുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടി കൂടുതൽ താൽപര്യം താൽപര്യമാണ് പിന്നെ നമ്മളെ ദക്ഷിണേന്ത്യൻ ഭക്ഷണങ്ങൾ കൂടുതൽ മസാലകളും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് അത്ര വലിയ താൽപര്യമില്ല